ഹലോ ചേട്ടാ ഞാൻ നേരത്തെ വിളിച്ചിരുന്നു ആ ആ വാടാന പള്ളി ബീച്ച് റോഡിലൂടെ വന്നിട്ട് ആനവളവിൽ ഒന്ന് പിക്ക് ചെയ്യാന് പറഞ്ഞിട്ട് ഞാന് പറഞ്ഞിരുന്നു ആ സമയമായിട്ടില്ല അതല്ല എനിക്ക് ഞാനിപ്പോൾ അവിടെയല്ല ഉള്ളത് ഞാനെന്റെ അനിയത്തിയുടെ വീട്ടിലാണ് ചേട്ടൻ അങ്ങോട്ട് വന്നാൽ മതി വൈകുന്നേരം മൂന്ന് മണിക്ക് വരാൻ പറഞ്ഞില്ലേ അത് ചേട്ടന് അങ്ങോട്ട് വന്നാൽ മതി അത് സ്ഥലം വന്നിട്ട് ആ ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടുന്ന് കുറച്ചുംകൂടെ ഫ്രണ്ടിലേക്ക് പോണം അപ്പോൾ ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിന്റെ ഓപ്പോസിറ്റായിട്ട് ഒരു രണ്ട് നില വീടുണ്ട് ആ അത് തന്നെ ആ ചേട്ടന് വരാന് പറ്റില്ലേ ഓക്കേ ഓക്കേ സമയം മറക്കണ്ട ചേട്ടാ മൂന്ന് മണിക്കാണേട്ടോ

ഓക്കേ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചേട്ടന് ഹോണ് അടിച്ചാൽ മതി ഞാൻ വരാം ഓക്കെ എന്നാൽ